നമ്മൾ വനപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുന്നതിനെയാണ് കൂടുതലും ട്രക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ വനത്തിലൂടെ മറ്റും യാത്ര ചെയ്യുമ്പോൾ വന്യ ജീവികളെ ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നു നമ്മൾ പല പല വനമേഖലകളിലൂടെയും മൂന്നാർ ഭാഗത്തു കൂടെയോ അല്ലേൽ വയനാട് ഭാഗത്ത്കൂടെയുള്ള മലനിരകളിൽ കൂടെ ഉടുമ്പൽപ്പേട്ട മറ്റേ വയനാട് ബത്തേരി തുടങ്ങിയ വനപാതകളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ധാരാളം മൃഗങ്ങളെ കാണാം ആന കാട്ടുപോത്ത് ചെറിയ ജീവികളായ മാന് കടുവ ചെറിയ ജീവികളായ മാന് മറ്റ് തുടങ്ങിയവ കടുവ പോലുള്ള വന്യജീവികളെ ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ഇവരെ നമുക്ക് ധാരാളം അകന്ന് നിന്ന് കാണുന്നതും പേടിപ്പെടുത്തുതുമായ ജീവികളെയും മറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഈ ഇതിലൂടെ പോകുമ്പോൾ രാത്രിയിൽ വന്യ മൃഗങ്ങൾ നമ്മൾ രാത്രികളിലൂടെ യാത്രയിലൂടെ നമുക്ക് ചെയ്യുമ്പോൾ ഇവർക്കും വളരെ ശല്യമാണ് വാഹനങ്ങൾ ഹോൺ മുഴക്കിയും മറ്റും ഇവരുടെ യാത്രകളിൽ പലപ്പോഴും ഇവർക്കൊരു തടസ്സമായി മാറാറുണ്ട് ഇവരുടെ രാത്രികളിലുറക്കം പല വനങ്ങളിലും ഇപ്പോൾ രാത്രി യാത്രകൾ നിരോധിച്ചിരിക്കുന്നു യാത്രയിൽ മൃഗങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങുന്നതിനും മറ്റും വേണ്ടിയാണ് ഇവരുടെ യാത്രകൾ നമുക്ക് രാത്രിയിൽ യാത്ര നിരോധിച്ചിരിക്കുന്നത് ഈ യാത്രയിൽ കൂടെ നമുക്ക് തടസ്സമുണ്ടാക്കുന്ന വിവിധതരത്തിലുള്ള യാത്രകൾ നമുക്ക് ഉണ്ടാകാതിരിക്കാനും രാത്രി വന്യ മൃഗങ്ങളെ കാണുക എന്നുള്ളത് അത് നടക്കുന്ന കാര്യങ്ങളും അല്ലാത്തത് കൊണ്ട് രാത്രിയിൽ ഇവരെ തടസപ്പെടുത്താനോ ശല്യം ചെയ്യാനോ നമ്മള് നോക്കരുത് അങ്ങനെയുള്ള തടസങ്ങളുണ്ടാകാതിരിക്കുകയും വേണം വന്യ മൃഗങ്ങളെ കാണുമ്പോളുണ്ടാകുന്ന സന്തോഷത്തിൽ കൂടുതലുപരി നമുക്ക് അതിലൂടെയുള്ള അവർക്കുണ്ടാകുന്നതും ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുകയും അവയെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മള് രാത്രി ട്രക്കിങ്ങിന് പോകുമ്പോൾ കാണാവുന്ന നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പല മൃഗങ്ങളെയും നമുക്ക് കാണുവാനും അവയെ അടുത്ത് കാണുവാനുമൊക്കെയാണ് നമ്മളിതിൽ കൂടുതൽ ഇങ്ങനെയുള്ള യാത്രകളിൽ നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് ഈ മൃഗങ്ങളെ ഒരു കാഴ്ചബംഗ്ലാവിൽ കാണുക എന്നതിനെ കൊണ്ട് പോവുക ലൈവായിട്ട് അവരുടെ ജീവിതത്തെ മനസ്സിലാക്കാനും പലതരം പക്ഷികൾ നമുക്ക് സഹായിക്കുന്നു ഈ യാത്രകൾ നമുക്ക് പലതരത്തിലുള്ള പക്ഷി മൃഗാദികളെ കണ്ടത്താൻ സാധിക്കും ഒത്തിരിയൊത്തിരി പക്ഷികളെയും അവയുടെ മർമ്മ പ്രധാനമായ സൗണ്ടുകളും ഒക്കെ നമുക്ക് ഇതിൽ നിന്നും കാണാനും കണ്ടു പഠിക്കുവാനുവൊക്കെ സാധിക്കുന്നതാണ് ഞാൻ ഒരു ഒരു ദിവസം ഒരു യാത്രയിൽ വനത്തിലൂടെ വന്നപ്പോൾ നല്ലെ കടാമുട്ടന്മാരായ കാട്ടു പോത്തുകളെ അടുത്ത് കണ്ടതാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ആദ്യം വരുന്നത് ഒരു കാട്ടുപോത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഏതാ ഒരു മറ്റേ ബാഹുബലി സിനിമയിൽ മറ്റേ അതിലെ പ്രതി നായകൻ മല്ല് പിടിക്കുന്നൊരു കാട്ടുപോത്തുണ്ട് ആ സൈസ് കാട്ടുപോത്തുകളെ നമുക്ക് വനത്തിൽ കാണാം ഞാനവയെ നേരിട്ട് കണ്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ നമ്മളെ നാട്ടിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്ഥമായി ആജാനുബാഹുവായ കാട്ടുപോത്തുകളാണ് അവിടെ കാണാൻ നമുക്ക് സാധിച്ചത് പിന്നെ മാന് കുരങ്ങ് അങ്ങനെ ഉള്ള ധാരാളം നമുക്ക് യാത്രകളിൽ കാണാവുന്നതാണ് പിന്നെ പക്ഷികൾ ആ മയിലുകൾ നമ്മൾ ആ ചിന്നാറിലുള്ള യാത്രയിൽ നമ്മള് മൂന്നാർ ചിന്നാർ ഭാഗങ്ങളിലൂടെയൊക്കെ പോകുവാണേൽ മയിലുകൾ നമ്മുടെ സമയം ക്ലിയർ ആണെങ്കിൽ മൈലുകൾ പീലി വിരിച്ച് നിൽക്കുന്നത് വരെ കണ്ടിട്ടുണ്ട് നമ്മള് ചിലപ്പോൾ ദൂരെ ആയിരിക്കും ചിലപ്പോൾ അടുത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഹോൺ മതി അവ പീലി ചുരുക്കി പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുവാനും ഇത് കാരണമാകുന്നു മയിലുകളുടെ കാഴ്ചകൾ അങ്ങേയറ്റം സുന്ദരവുമായിരുന്നു അതെ പിന്നെ ആ ഒരനുഭവം എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോകുമ്പോൾ പിന്നെ ആ പിന്നെ കണ്ടിട്ടുള്ളത് വന്യ ജീവികൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു നമുക്കങ്ങനെ പഴയപഴയ കാര്യങ്ങളോർത്തെടുക്കാൻ കിട്ടുന്നില്ലാത്ത കൊണ്ടാണ് ഈ പ്രശ്നം പറഞ്ഞത് കൊണ്ട് ഈ ആ പിന്നെ ഒരു യാത്രയിൽ വഴിയിൽ ഒരു മലമ്പാമ്പ് വട്ടം ക്രോസ്സ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങള് വണ്ടി നിർത്തി കൊടുക്കുകയും അപ്പോൾ മലമ്പാമ്പ് പതുക്കെ ഇഴഞ്ഞ് നട് റോട്ടിലൂടെ ക്രോസ്സ് ചെയ്ത് പോകുന്ന ഒരു ദിവസത്തെ ഒരു യാത്രയിൽ കണ്ടതാണ് വളരെ തന്മയത്തോട് കൂടി നമ്മള് നിർത്തി കൊടുത്തത് കൊണ്ട് ആ പാമ്പ് പെട്ടെന്ന് കടന്ന് പോയത് പെട്ടെന്ന് കടന്ന് പോകുകയുണ്ടായി നല്ലൊരു ഇതായിരുന്നു നമുക്ക് പേടി പൊതുവേ പിന്നെ ഒരു രാത്രിയിൽ ഞാൻ ബൈക്കുവായിട്ട് വരുമ്പോൾ വഴിസൈഡിൽ ഒരു കാട്ടാന നിൽപ്പുണ്ടായിരുന്നു അപ്പം ഒരു വണ്ടി വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്നു ഞാനത് വണ്ടി നോക്കാതെയിങ്ങ് കടക്കാൻ തുടങ്ങുന്നതിന് ഒരു പുള്ളി അവിടുന്ന് വിളിക്കുകയും ഈ ആന വഴി ചാലിൽ ശല്യം ഒന്നും ഉണ്ടാക്കാതെ പിന്നെ ആരെയും ഉദ്രവിക്കാതെ നിൽക്കുകയായിരുന്നു ആന നിൽപ്പുണ്ടായിരുന്നു ആന അവിടെ നിന്ന് പുല്ല് തിന്നു ഞാൻ സൈഡിൽ കൂടെ ഇങ്ങ് പോന്നു കടന്ന് കഴിഞ്ഞപ്പളാണ് നമ്മൾ അമ്പോ ആനയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്രാവശ്യം വന്നപ്പം അവിടെയും ആൾക്കാര് നോക്കി നിൽപ്പുണ്ടായിരുന്നു അപ്പം ഞാനവരോട് പറഞ്ഞു ഞാൻ കണ്ടില്ല അതുകൊണ്ടാണിങ്ങനെ പോന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ആന കടന്ന് പോകുകയും നമ്മളെ ഉപദ്രവിക്കാതിരിക്കുകയും വെച്ച് കഴിഞ്ഞു അങ്ങനെ പിന്നെ പല വന്യമൃഗങ്ങളെയും കണ്ടിട്ടുണ്ടങ്കിലും നമ്മൾ ട്രക്കിങ്ങിനായി പോവുക അങ്ങനെ അകത്ത് ഉൾ വനങ്ങളിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല ഉൾ വനങ്ങളിലേക്ക് നമുക്ക് പോകാൻ അങ്ങനെ ഒരു സാഹചര്യമുണ്ടായിട്ടില്ല അങ്ങനെ പോയെങ്കില് അതൊരു വേറൊരു അനുഭവം ആയിരിക്കും ഇവിടെ അടുത്തുള്ള ചിലർ നമ്മള് പ്രധാന പാതകളിലൂടെ പോകുമ്പോൾ കാണുന്ന മൃഗങ്ങളും അതിൻ്റെത് തായ കാര്യങ്ങളുമൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ യാണ് എൻ്റെയൊരു ട്രക്കിംഗ് അനുഭവം അല്ലാണ്ട് വന്യജീവികൾക്ക് അങ്ങനെയായിട്ട് ഒരു ട്രക്കിംഗ് അല്ല എന്നാലും നമ്മളോരോ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോളുണ്ടാകുന്ന അത് നമ്മള് ട്രക്കിങ്ങായിട്ട് എടുക്കുമ്പോൾ അത് അപ്പം മനുഷ്യർ ഇവയെ ഉപദ്രവിക്കാനിടയാകുന്നത് വളരെ മോശകരമായ കാര്യമാണ് അവർക്ക് ജീവിക്കണം വന്യമൃഗങ്ങളെ നമ്മളുദ്രവിക്കാൻ പാടില്ല അവയ്ക്ക് നമ്മൾ രാത്രി ഹോണടിക്കുകയും മൃഗങ്ങളെ കാണുമ്പോൾ നമ്മൾ വളരെ സ്പീഡ് കുറച്ച് പോകുകയാണെങ്കിൽ അവർക്കൊരു ഉപദ്രവവും ഇല്ല നമുക്ക് വഴിയെ പോകുകയും ചെയ്യാം ഇവരെ കാണുകയും ചെയ്യാം ചിലപ്പോൾ ഒരാളുടെ ഒരു ഹോൺ ഹോണടി മതി വഴിയിൽ നിൽക്കുന്ന മൃഗങ്ങളോടി മാറാനും അവർക്കതൊരു ഉറങ്ങുകയോ റെസ്റ്റ് എടുക്കുകയോ ചെയ്യുമ്പോളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് ഒഴിവാക്കാനും അതിൽ മൂലം സഹായിക്കും അപ്പം നമ്മളങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും നമ്മളേക്കാൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഉപദ്രവങ്ങൾ നമ്മളുപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മള് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എല്ലാവരും അത് ശ്രദ്ധിക്കുക എല്ലാ ഉപദ്രവങ്ങളിലും നമുക്കിവരെ എല്ലാവരേം ശ്രദ്ധിക്കണ്ടേ നമ്മുടെ ആണെന്ന് ഉള്ളൊരു ഹോ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ടല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് പറയാൻ ഉള്ളത് എല്ലാവർക്കും എല്ലാവരേയും സഹകരിക്കുക സന്തോഷത്തോടെ സഹകരിക്കുക എന്നുള്ളതിനെ കുറിച്ചല്ലാതെ എല്ലായ്പ്പോഴും ഉപദ്രവിക്കാതെയും മനുഷ്യരുടെ ഇടപെടൽ മൂലം വന്യ മൃഗങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകരുതല്ലോ എന്നും പറഞ്ഞ് കൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം മനുഷ്യർ ഉപദ്രവം വന്യജീവികൾക്ക് ശല്യമായി ആകാതിരിക്കട്ടെ വന്യജീകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് കൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം സ്വീകരിക്കുക